ഇപ്പോൾ കേരളത്തില് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു ചുവടു വെയ്പ്പ് വിദ്യാർത്ഥികള് കാണിക്കുന്നുണ്ട് അപ്പം അതിന് നമ്മള് മാതാപിതാക്കള് തന്നെ ആദ്യം മുന്നിട്ട് ഇറങ്ങുക തന്നെ ചെയ്യണം അധ്യാപകരും അധ്യാപികമാരും അതിന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കണം ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യണ്ടൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീട്ടിലുള്ളവര് തന്നെ നല്ല രീതിയിലുള്ള ഒരു ആ കുട്ടിക്ക് എന്ത് കഴിവാണ് ഉള്ളത് എന്ന് നമ്മള് മനസ്സിലാക്കണ്ടൊരു കാര്യമാണ് എന്നിട്ട് വേണം അവരെ എന്തിന് വിടണം ഏത് പഠിക്കാൻ വിടണം എന്ന് തീരുമാനിക്കുന്നത് അപ്പം ഇതൊക്കെയൊരു കാര്യമായിട്ട് നമ്മള് ചെയ്യണ്ട ഒന്നാണ് കുട്ടികൾക്ക് പലരും പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ് ഇപ്പോൾ ഒരാളെ ഉപമിച്ച് നമ്മളൊരിക്കലും നമ്മുടെ കുട്ടിയെ തരം താഴ്ത്തരുത് അവര് നല്ലോണം പഠിക്കുന്നുണ്ട് നീ നല്ലോണം പഠിക്കുന്നില്ല എന്നൊന്നും ഒരു കാരണവശാലും നമ്മളത് പറയാൻ പാടില്ല ഓരോർത്തർക്കും പല രീതിയിലുള്ള കഴിവുകളുണ്ടാവും അപ്പം ആ കുട്ടി നല്ലോണം പഠിക്കുന്നുണ്ടാവും എൻ്റെ കുട്ടി അത്രയും പഠിക്കുന്നില്ല എന്താന്നെനിക്കറിയില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങള് അപ്പം നമ്മളതിനെ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ കുട്ടി നല്ല രീതിയില് എത്തുകയുള്ളൂ ഇതൊക്കെയാണ് മെയിനായിട്ട് വിദ്യാഭ്യാസം എന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മക്കൊരു നല്ല രീതിയിലുള്ളൊരു ജോലി കിട്ടി നമ്മുടെ മാതാപിതാക്കളെ നല്ല രീതിയില് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു ഉള്ളടക്കം എന്ന് വേണമെങ്കിൽ പറയാം